ഞാൻ ഒരു ദിവസം ഒരു രണ്ടു മൂന്ന് തവണ എങ്കിലും വാർത്തകൾ വായിക്കുകയും കേൾക്കുന്ന ആളാണ് രാവിലെ ആകുമ്പോൾ വീട്ട് മുറ്റത്ത് പത്രം വരുന്നു പത്രം എടുത്ത് വായിക്കുന്നു അതുപോലെ തന്നെ ടി വിയിലാണെങ്കിൽ ലൈവായിട്ടുള്ള ന്യൂസുകൾ കാണാറുള്ള ഒരാളാണ് ഞാൻ പിന്നെ എനിക്ക് ഏറ്റുവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കായികം ഞാൻ കാണും വിനോദം കാണും ബിസിനസ്സ് സംബന്ധമായ വാർത്തകൾ ഞാൻ കാണും കുറ്റകൃത്യം അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുള്ള വാർത്തകൾ ഞാൻ കാണും ശാസ്ത്രമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണും വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടതും രാഷ്ട്രീയമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഞാൻ കൂടുതലും കാണുന്നത് കായികമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണെങ്കിൽ ഞാൻ ക്രിക്കറ്റ് ഫുട്ബോൾ അങ്ങനെയുള്ള കായിക മത്സരങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അതിൻ്റെ വാർത്തകൾ കാണാറുണ്ട് പിന്നെ വിനോദമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം പരിപാടികൾ ഞാൻ കാണാറുണ്ട് അപ്പം പുതിയ പുതിയ അറിവുകളാണ് അതു വഴി ലഭിക്കുന്നത് പിന്നെ അതുപോലെ ബിസിനസ്സ് സംബന്ധമായ വാർത്തകളാണെങ്കിൽ ഞാൻ ബിസിനസ്സ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ബിസിനസ്സ് സംബന്ധമായ വാർത്തകളൊക്കെ ഭയങ്കര താൽപ്പര്യമാണ് കാണാൻ കാരണം അംബാനി പോലുള്ള ആളുകൾ അല്ലെങ്കിൽ മുകേഷ് അംബാനി പിന്നെ അദാനി പോലുള്ള ആളുകളുടെ ഒക്കെ ബിസിനസ്സ് സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് അവർ പ്രോഫിറ്റുകൾ ഒത്തിരി വാരി കൂട്ടുന്നവരാണ് ആൾക്കാരാണ് അപ്പോൾ അതുപോലെയുള്ള ബിസിനസ്സ് വാർത്തകൾ കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര താൽപ്പര്യമാണ് പിന്നെ അതുപോലെ കുറ്റകൃത്യം കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഒട്ടനവധിയാണ് ഇപ്പം ഓരോ ദിവസം ചെല്ലും തോറും കുറ്റകൃത്യം കൂടി വരികയാണ് അപ്പോൾ ചാനലിലാണെങ്കിലും പത്രത്തിലാണെങ്കിലും ഇഷ്ടം പോലെ കുറ്റകൃത്യമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് അപ്പം അതൊക്കെ വായിക്കാനും കേൾക്കാനും ഭയങ്കര കൗതുകമാണ് കാരണം നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് പുതിയത് ഓരോ ദിവസം ചെല്ലും തോറും നടന്നോണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് എതിരായിട്ടുള്ളത് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ളത്

ഇപ്പോൾ ഈ റോക്കറ്റ് വിടുന്നത് ചൊവ്വയിൽ നമ്മൾ ഇന്ത്യ പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഭയങ്കര കൗതുകത്തോട് കൂടിയാണ് ശാസ്ത്ര ലോകത്തെ വാർത്തകൾ ഞാൻ കേൾക്കുന്നത്